ഞാൻ വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ രാമായണോം ഭഗവത് ഗീതയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ അതിൽ നിന്നെല്ലാം ഓരോരോ ശ്ലോകങ്ങൾ പറയുമ്പോഴും അതിനെ ആപ്പ് അപ്പ് പറഞ്ഞ് നമ്മൾ വായിച്ച് പറഞ്ഞതിനെല്ലാം ഓരോ ശ്ലോകങ്ങൾ നമ്മളതിൽ കണ്ടിട്ടുണ്ട് അതിനൊരോരോ അർത്ഥങ്ങളുമുണ്ട് ആ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതൽ ഇത് വായിച്ച് എൻ്റെ മനസ്സിനെ സമാധാനം കണ്ടെത്തിയിട്ടുണ്ട് ഇതിലെല്ലാം എഴുതിയിരിക്കുന്നത് വിവരിച്ചിരിക്കുന്നത് എല്ലാം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ കൂടുതലും ഇത് ഇതിൽ ഈ ആത്മീയ കഥകളിലെല്ലാം എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ അത് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യവാണ് കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലന്നു വരുത്തുന്നതും ഭവാൻ അതും ഭഗവാൻ്റെ ഒരിതാണ് നമ്മളിപ്പം ഒരാളിനെ കണ്ടോണ്ടിരിക്കുന്നു ഇന്ന് ഒരാളെ കണ്ടാൽ പിന്നെ നാളെ ആ ആൾ ഉണ്ടോ ഇല്ലേന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റൂല്ല നമ്മളായാലും ശരി മറ്റൊരാളായാലും ശരി മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ ഒരു രാജാവായാലും ശരി ആരായാലും ശരി മുകളിലോട്ട് പോയാലും അവർ എത്ര ഉയരങ്ങളിലെത്തിയാലും ചിലപ്പം ഭഗവാൻ വിചാരിച്ചാലതിനെ മാറ്റി മറിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി ആർക്കായിരുന്നാലും അത് ഉണ്ടാകാറുണ്ട് നമ്മുടെ ജീവിതത്തിലായിരുന്നാലും എൻ്റെ അനുഭവങ്ങളിലതുണ്ടായിട്ടുണ്ട് അതുപോലെ എല്ലാവരുടെയും ജീവിതങ്ങളും അത് ഉണ്ടാവും ഉണ്ടാവാതെ ഇരിക്കില്ല ഇതെല്ലാം എഴുതിയേക്കുന്നതും എല്ലാം ഈ ശ്ലോകങ്ങൾ എല്ലാം എല്ലാത്തിനും ഓരോ അർത്ഥങ്ങളും ഓരോന്ന് കൊടുത്തിട്ടുള്ളതാണത് അത് നമ്മളത് മന അത് ഓരോ വരികളും നമ്മൾ വായിക്കുമ്പോഴ്ത്തേക്ക് നമുക്കതിൻ്റെ അർത്ഥങ്ങൾ നമ്മളത് കുറച്ച് സമയം നമ്മളത് മനസ്സിരുത്തി അത് വായിച്ച് മനസ്സിലാക്കുമ്പം തന്നെ നമുക്കത് മനസ്സിലാവും ഇതിന് ഇതിൽ കൊടുത്തിരിക്കുന്ന വാക്യത്തിന് ഇന്ന ഇന്ന അർത്ഥങ്ങളുണ്ട് എന്ന് നമുക്ക് അതിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അത് അത് വെച്ച് നമുക്കോരോ ഒന്നിന് ഓരോ അർത്ഥം ഉണ്ട് ഓരോ വരിക്കും ഓരോ അർത്ഥം ഉണ്ടെന്നുള്ളത് നമുക്ക് തീർച്ചയായും മനസ്സിലാവുന്നൊരു കാര്യമാണ്